ഹലോ ബസ്സ്

ഇത് ടൂറിസ്റ്റ് ബുക്കിംഗ് കേന്ദ്രം അല്ലേ ആ ഞാൻ ബോംബെ നിന്ന് വിളിക്കുകയാണ് കേട്ടോ ആ എനിക്ക് കേരളത്തിലോട്ട് ഒരു പിന്നെ ട്രിപ്പ് പോകണമെന്നൊരു താൽപ്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കേരളത്തിൽ എന്തൊക്കെയാണ് അത് എവിടെ എങ്ങനെയാണെന്നുളള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം വിളിച്ചത് എനിക്ക് അവിടെ അവിടെ അവിടെ ചെന്നാൽ ഒന്നാമത് കേരളത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം അതുപോലെ തന്നെ അവിടത്തേത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒക്കെ ഒന്ന് സന്ദർശിക്കണം അത് ഏതൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഒന്നു പറയാമോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ

ആ എനിക്ക് വാഗമണ്ണ് ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്നുള്ള താൽപ്പര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് അവിടെ നല്ല ആഹാരം കിട്ടുന്നതിനെ കുറിച്ച് ആഹാരം കിട്ടാൻ സാധ്യത ഉള്ള എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എനിക്ക് സാമ്പത്തികത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ യാതൊരു പ്രശ്നം ഇല്ല എനിക്ക് നല്ല സൗകര്യം ഉള്ളതും നല്ല വൃത്തിയുള്ളതും എല്ലാം നല്ല ആ ഉള്ളതായ പിന്നെ അതുപോലെ താമസ സൗകര്യവും വേണം പിന്നെ നല്ല ആഹാരം നല്ല താമസ സൗകര്യം ആ അതിന് ഞാൻ ചോദിച്ചത് എനിക്ക് അവിടെ ചെന്നിട്ട് പിന്നെ അത് ഒരു ബുള്ളറ്റ് സംഘടിപ്പിച്ച് തരാൻ വല്ല മാർഗവും ഉണ്ടാവുമോ

ആ ആ അല്ലേ അല്ലെങ്കിൽ അല്ല ഈ ബുള്ളറ്റാണ് ഉദ്ദേശിച്ചത് ബുള്ളറ്റിന് വല്ല പിന്നെ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് കാറായാലും മതി കാറ് ആ ആ പിന്നെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ നമ്മളെ ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രം കൊണ്ട് കാണിക്കാൻ നമ്മളെ കൂടെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് സഹായത്തിനൊക്കെ വരാൻ ആരെങ്കിലും ആ ആ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വേറെ ആരെയും ഞാൻ അടുത്ത ഞായറാഴ്ചയാണ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്തേക്ക് എനിക്ക് അത് കിട്ടണം തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ മതി ആ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ആ പിന്നെ വിളിക്കാം നമ്മൾക്ക് ഇവിടെ നിന്ന് വിളിക്കാം ഓ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക്സ്